എഴുതാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ സന്ദേഹം പുലർത്തുന്നുമായിട്ടുള്ള വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ പത്ത് പ്രാവശ്യം ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളെ സൈബർ ബുള്ളെ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് നിരന്തരം അറിയാം രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുകയും രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യുന്ന ആളുകളെല്ലാം നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ് അവരുടെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്നൊന്നും നോക്കാതെ അവരെ ഇരയാക്ക പെട്ടു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഇപ്പം രാഷ്ട്രീയക്കാർ എന്തെങ്കിലും അഴിമതി നടത്തി അത് നമ്മൾ ചോദ്യം ചെയ്യുകയാണ് നമ്മള് തന്നെയാണ് ഇരയാക്കപ്പെടുന്നത് അല്ലെ അവരെ ചോദ്യം ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ഒരു അവകാശമാണ് ഏതൊരു പൗരനും അവകാശമാണ് മറ്റുള്ളവരെ ഇതാക്കാൻ അല്ലെങ്കിൽ അവരുടെ തെറ്റ് കണ്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷേ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവര് നമ്മളെ സൈബർ ബുള്ളിങ് വഴി അല്ലെങ്കിൽ നമ്മളെ തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തില് രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള അഴിമതിനെ കുറിച്ചിട്ടോക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുകയും നമ്മള് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇര ആക്കപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയകാര്യങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോവലും ചെറുകഥയും കവിതയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് എഴുതാം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാം വിമർശിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ നമ്മളൊരു പത്രത്തിൽ എഴുതുന്ന സമയത്ത് നമ്മൾ അത് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ആ പത്രം ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനുള്ള ഒരു കഴിവുണ്ട് ഇപ്പോൾ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തതയില്ലാണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആളെ പൂർണമായി മനസ്സിലാക്കാണ്ട് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നത് വലിയൊരു പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മള് പത്രങ്ങളിലും ബാക്കി സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഒരു കാര്യം എഴുതുന്ന സമയത്ത് നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റു അല്ലെങ്കിൽ നമ്മള് തന്നെ ഇരയാക്കപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്